എൻ്റെ ഗ്രാമത്തിൽ ജലസേചനത്തിനായിട്ട് വളരെ വിശാലമായിട്ടുള്ള സൗകര്യമുണ്ട് കാരണം ഇവിടെ ഗ്രാമത്തിലുള്ള പാടങ്ങളിൽ മറ്റൊക്കെ നല്ല രീതിയിൽ അന്ന് കൃഷിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ കൂടുതലായിട്ട് നെല്ല് നെല്ല് കൂടുതലായിട്ട് നല്ല നെല്ല് മാത്രമാണ് നെല്ല് പിന്നെ വാഴ ഉണ്ട് ഇവ രണ്ടും ആണ് അവിടെ നടുന്നത് എന്നുള്ളതാണ് അപ്പം അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മോശമാണെന്ന് പറയാൻ പറ്റില നല്ല രീതിയിൽ അത് അത്ര വലിയ സൗകര്യമെന്നു ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു വേണ്ട രൂപത്തിലുള്ള സൗകര്യമുണ്ട് ജലസേചനത്തിനായിട്ട് അവിടെ ഇന്ന് കിണർ കുഴിച്ചിട്ടാണ് ഉള്ളത് വലിയ കിണർ ഉണ്ട് അപ്പം അവിടെത്തന്നെ ആയിട്ട് അവിടെ നിന്ന് പൈപ്പിൽ പമ്പ് ചെയ്യാനും അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇത്തത്തിലുള്ള ഒരു സൗകര്യമാണ് എൻ്റെ നാട്ടിൽ ഒരിക്കി യിട്ടുള്ളത് അപ്പോൾ ഈ വിളകളൊക്കെ എന്നു പറയുമ്പോൾ നെല്ല് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാം ഇതിനൊരു സീസൺ ഉണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു നിലം വെറുതെ വിജനമാക്കിയിട്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ചിടുന്ന ഒരു അവസരം ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അവിടെ കുട്ടികൾ കളിക്കാൻ വിനോദത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക അപ്പോൾ ഇവിടെ കൃത്യമായ അങ്ങനെ ഒരു വിളകൾ അല്ലെങ്കിൽ ജലസേചനം അത്ര അങ്ങ് എഫിഷ്യൻറ് ആയിക്കൊണ്ടോ അല്ലെങ്കിൽ അത്രയധികം ആവശ്യപ്പെടുന്ന രൂപത്തിൽ ഇവിടെ വിളകൾ ഉൽപാദിപ്പിക്കപ്പെടുന്നില്ല എന്നു തന്നെ പറയാം അത് ഞാൻ മനസിലാക്കിയെടത്തോളം അത്ര വലിയ വിളകളൊന്നും അത്ര നല്ല രൂപത്തിലൊന്നും എൻ്റെ പഞ്ചായത്തിൽ വിളവെടുക്കുന്നില്ല അല്ലെങ്കിൽ കൃഷി ചെയ്യപ്പെടുന്നില്ല എന്ന് പറയാം അപ്പോൾ ജലസേചനം ആ ഒരു ലെവലിൽ എത്തിയാൽ മതി ആ ഒരു ലെവലിൽ ഉണ്ട് താനും അതിൽ ഇനി പ്രത്യേക മാറ്റങ്ങൾ വരുത്തണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതിന് അനുസരിച്ചു വിളകൾ കൂടുതൽ നടണം കൂടുതൽ പരിപാടികളുമായി പദ്ധതികളുമായിട്ട് മുന്നോട്ട് വരണം ഇരുന്നാൽ മാത്രമാണ് ജലസേചനം വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വച്ചു നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു യാതൊരു വിധ ആവശ്യമെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ വിളകളെ കുറിച്ചു പറയുമ്പോൾ നെല്ല് വാഴ നേരത്തെ പറഞ്ഞതുള്ളൂ അത് രണ്ടുമാണ് ഉള്ളത് പിന്നെ അങ്ങനെ ഒരു ജലസേചനം ഉപയോഗിക്കുന്ന രൂപത്തിൽ വേറെ വിളകളൊന്നും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ജലസേചനം നമ്മൾ ന്യൂസിലും മറ്റൊക്കെ കാണാറുണ്ട് പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അവിടെയൊക്കെ എന്ത് വച്ചു കഴിഞ്ഞാൽ കുറേ കർഷകർ ഉണ്ടാവും അവർ അതിന് അനുസരിച്ചു വിളകൾ ഉല്പാദിപ്പിക്കുന്നുണ്ടാവുകയും അങ്ങനെയുള്ള അവസ്ഥകളിലാണ് ഇങ്ങനെ പ്രതിഷേധങ്ങൾക്കും ആധികൾക്കും ഒക്കെ ഈറ്റ വരുമല്ലോ നമ്മൾ ഇവിടെ പറയുമ്പോൾ അങ്ങനെ കർഷകരില്ല കർഷകർ വളരെ കുറവാണ് കർഷർ വളരെ തുച്ഛം എന്നു പറഞ്ഞാൽ വളരെ തച്ഛമാണ് നമ്മുടെ പഞ്ചായത്തിൽ അപ്പോൾ അതിന് അനുസരിച്ചു വിളകളും കുറവാണ് അപ്പോൾ ജലസേചനം മാര അതിനെ വച്ചു നോക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ജലസേചനം ഉള്ളത് അല്ലാതെ മറ്റും പുറത്തുള്ളത് വച്ചു നോക്കുമ്പോൾ അത്ര നിലവാരമില്ലെ എ എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആവശ്യമുള്ളതിനേക്കൾ വലിയ ഒരു സൗകര്യം തന്നെ പഞ്ചായത്ത് ഒരുക്കി തോന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്